ആ ട്രക്കിംഗ് ഉറുമ്പാലക്കോട്ടയുണ്ട് ബ്രഹ്മഗിരി മലയുണ്ട് ആ വയനാട്

ആ നമ്മൾ അല്ല നമ്മൾ ആൾക്കാരുണ്ടോ നമ്മൾ കൂടെ ഉണ്ടാകും അ ആ

ആ നിങ്ങൾ സ്റ്റേ സ്റ്റേയാണോ അവിടെ തന്നെയാണോ അല്ലെങ്കിൽ വേറെ വേറെ സ്ഥലത്താണോ നിങ്ങൾ താമസിക്കുന്നത് വേറെ സ്ഥലത്താണോ അതല്ല നിങ്ങൾ ഇവിടെ വന്നിട്ട് താമസിക്കുന്നത് വേറെ സ്ഥലത്താണോ എന്ന് നമ്മൾ നമുക്ക് കുറുമലക്കോട്ടെ തന്നെ റിസോർട്ട്ണ്ട്

അതിനുള്ള ആ അത് നമ്മൾ ചെയ്ത് തരും

ആ നമ്മൾ ഡ്രൈവ് നമ്മളെ വണ്ടി ഉണ്ടാകും

ആ കൂട്ടിക്കൊണ്ടു പോകും നമ്മൾ മാ എല്ലാ സ്ഥലത്തും കൊണ്ട് പോകും മൃഗങ്ങളെ കാണിക്കും അങ്ങനൊക്കെ പരിപാടിയുണ്ട്

നിങ്ങൾക്ക് എവിടെയൊക്കെ കുറുമ്പാലയം മാത്രം മതിയോ അല്ലെങ്കിൽ ബ്രഹ്മഗിരി വേണോ ആ നമ്മൾ കുറുമ്പാലയുണ്ട് ബ്രഹ്മഗിരിയൊക്കെ ഉണ്ട് അവിടൊക്കെ നല്ല സ്ഥലങ്ങളാണ് ഉള്ളത്

ബ്രഹ്മഗിരി പോകാണെങ്കിൽ ആന ആന അങ്ങനത്തെ ഒക്കെ എല്ലാം ഉണ്ടാകും നിങ്ങൾ എത്ര പേരുണ്ടാകും എട്ട് പേര് ആ ആ ആ അതിനുള്ള ആൾക്കാർ നമ്മുടെ ഇവിടെ തന്നെയുണ്ട് ആ ആ സൗകര്യമുണ്ട് ആ നമുക്ക് അതിനുള്ള റൂമ്ണ്ട്

ആയിക്കോട്ടെ ശരി